സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ പോലെയൊക്കെയുള്ളത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാറുള്ളത് അത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ ശ്രദ്ധിക്കാറുമുണ്ട് സ്റ്റാമ്പുകളൊക്കെ നല്ല ഫയലുകളിലോ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണ് സ്റ്റാമ്പുകളൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ എടുത്ത് കാണിക്കത്തക്കെ വിധത്തിൽ നല്ല ഭംഗിയായി അടുക്കി ഒതുക്കിയാണ് ഫയലുകളിൽ സൂക്ഷിക്കാറുള്ളത് അതുപോലെതന്നെ നാണയങ്ങളൊക്കെ ആണെങ്കിൽ കുടുക്കയിലിട്ട് വെക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടുകളിലിട്ട് സൂക്ഷിക്കാറുണ്ട് അതുപോലെതന്നെ എന്താണ് വളരേ വിചിത്രമായ രീതിയിൽ തന്നെ ആൾക്കാർക്ക് കാണത്തക്ക വിധം പ്ലാസ്റ്റിക് കൂടിൽ ഫയലുകളിലും ഈ നാണയങ്ങളൊക്കെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ വളരെ നല്ല രീതിയിൽ അടുക്കി ആകർഷകമാം വിധം തന്നെ നാണയങ്ങളും അലങ്കരിച്ച് വെക്കാറുണ്ട് കല്ലുകളാണെങ്കിൽ ഷോക്കേസുകളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ ആരെങ്കിലൊക്കെ വരുമ്പോഴത് കാണത്തക്ക വിധത്തിലതിനെ അതിനെ സംരക്ഷിച്ചു നിർത്താറുമുണ്ട് ഒപ്പം അത് വളരെ വളരെ നല്ല രീതിയിൽ അതിനെ സൂക്ഷിച്ചു വെക്കാറുമുണ്ട്